ഗ്രാമീണസമുദായത്തിലെ കാർഷിക വ്യവസായത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവർക്ക് നല്ല രീതിയിലുള്ള വിത്തുകൾ നല്ല ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ നല്ല ഏറ്റവും മുന്തിയ രീതിയിലുള്ള വിത്തുകൾ അവർക്ക് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്കവരെ സഹായിക്കാം അതുപോലതന്നെ ചില കർഷകർക്ക് പൈസ ധനസഹായം അതെന്നു പറഞ്ഞാൽ അവർ പുറകോട്ടു പോകുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിധത്തിൽ സർക്കാരിൻ്റെ ഒക്കെ ആണെങ്കിലും രീതിയിൽ അവരെ ലോണൊക്കെ പാസ്സാക്കി അവർക്ക് കൊടുത്ത് അവർക്ക് ധനസഹായം ചെയ്ത് അവരുടെ ആ വ്യവസായത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെതന്നെ ചിലവർക്ക് കൃഷിയുടെ എന്താ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിനെ എന്ത് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും ഇപ്പോൾ അത് നശിച്ചുപോയി ഇല്ലെങ്കിൽ അതിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ലാത്തവർ അവർക്ക് നമുക്ക് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരുടെ ആ പ്രശ്നത്തെ പരിഹരിക്കാനും അവരുടെ ആ വ്യവസായ വ്യവസ്ഥയെ വ്യവസായത്തെ മുന്നോട്ട് കൂടുതൽ മെച്ചപ്പെടുത്താനുമൊക്കെ ഒരു അവേർനെസ്സ് ക്ലാസ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് പ്രയോജനപ്പെടാം പ്രയോജനപ്പെടും പിന്നെ ലോണുകൾ അല്ലെങ്കിൽ എന്തിന് വേറെ എന്തെങ്കിലും ധനസഹായങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും